എൻ്റെ കയ്യിൽ ഉള്ളത് റെഡ്മിൻ്റെ നോട്ട് ഏയ്റ്റാണ് നോട്ട് എയ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നല്ലൊരു ഫോണാണ് അതിൻ്റെ സിക്സ് ജിബി വൺ ട്വന്റി എയിറ്റാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കണത് ഇപ്പോൾ ഫോൺ സ്ലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ക്യാമറ ആയിക്കോട്ടെ അതെല്ലാം പക്കാ നല്ല കണ്ടീഷനാണ് പിന്നെ അതിൻ്റെ കാണുന്ന ആ ഒരു ലുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു നമുക്ക് ഒരു നമ്മുടെ അട്രാക്റ്റ് ചെയ്യണ പോലെയാണ് ഒരു സ്ലിം ആയിട്ടുള്ള ഒരു ലുക്കാണ് അത്യാവശ്യം ചെറുത് ചെറിയ രീതിയിൽ ഒരു വെയിറ്റ് ഉണ്ട് ക്യാമറയും എല്ലാം കുഴപ്പമില്ല പിന്നെ അതിൻ്റെ ബാറ്ററിയും അയ്യായിരം എം എച് ആണ് അതും നമുക്ക് ലോങ്ങ് എവിടേക്കെങ്കിലും പോകുകയാണെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന ഒരു തരത്തിലേക്കൊന്നും ഈ ഫോൺ ഉപയോഗിച്ചാൽ നമുക്ക് പറ്റില്ല കുഴപ്പമില്ല ഒരു ഉപഭോക്താവിന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫോൺ അവ കമ്പനിക്കാർ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എച്ച് ഡി വീഡിയോസ് അതിൻ്റെ ശരിയായ ക്ലാരിറ്റി ക്ലിയറോടെ തന്നെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ പറ്റും ഈ റെഡ്മി നോട്ട് എയ്റ്റിൽ അത് അവരുടെ മികച്ച ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാം ഡോൾബി അറ്റ്മോസാണ് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം അതുപോലെ സ്ക്രീൻ എച്ച്ഡി സ്ക്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു പാട്ടു കേൾക്കാൻ ആയിക്കോട്ടെ ഒരു വീഡിയോ നമ്മൾ കാണാൻ ആയിക്കോട്ടെ അതിൻ്റെ നൂറ് ശതമാനം നമുക്ക് അതിനും മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് ഈ ഫോൺ അവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പോൾ അതിനെ പറ്റി പറയാനാണെങ്കിൽ നെറ്റ്വർക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നെറ്റ്വർക്ക് കവറേജ് ഇല്ല അങ്ങനെയാണ് ഇതിൽ ചില ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ മൊബൈൽ നെറ്റ്വർക്ക് നല്ല രീതിയിൽ തന്നെ ഈ റെഡ്മിയുടെ ഫോണുകളിൽ നമുക്ക് കിട്ടാൻ സാധിക്കും അത് ഇതിൻ്റെ നല്ല ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് മൊത്തത്തിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ഫോൺ ആണ് റെഡ്മി നോട്ട് എയ്റ്റ് ആരെങ്കിലും വിലയും അതിനനുസരിച്ചിട്ട് വേറെ കമ്പനികളെ പോലെ ഒരുപാട് വില കൂടുതലൊന്നും പറയാനില്ല സാധാ ജോലിക്ക് പോകുന്ന ആളായാലും വിദ്യാർത്ഥികൾക്ക് ആയാലും ആർക്കും വാങ്ങാൻ പറ്റുന്ന കുറഞ്ഞ ചിലവിൽ വാങ്ങാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് ഇത് നമ്മളൊരിക്കലും പറ്റിക്കപ്പെടില്ല ഈ മൊബൈൽ ഫോൺ വാങ്ങിയാൽ അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്